ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എൻ്റെ കുടുംബത്തിനാന്ന് എൻ്റെ കുടുംബം കഴിഞ്ഞിട്ടേ ഞാൻ വേറെ എന്തിനും പ്രാധാന്യം ഉള്ളൂ എൻ്റെ ലൈഫില് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കൽ എൻ്റെ ഭർത്താവിന്റേം എൻ്റെ കുട്ടികളുടെയും കൂടെയാണ് ഞാൻ വീട്ടിൽ വേഗം രാവിലെയൊക്കെ കുട്ടികളുടെ കൂടെ ടൈമില് വേഗം പണിയൊക്കെ തീർത്തിട്ട് കൂടുതൽ സമയം കുട്ടികളുടെ കൂടെ ഇരിക്കുകയും അവരൂട പല ഗെയ്മും കളിക്കും തമാശകളും പറഞ്ഞിരിക്കും കുറച്ച് സമയം അവരെ പഠിപ്പിക്കും അതു കഴിഞ്ഞിട്ടാകുമ്പോൾ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഹസ്ബൻറ്റിൻ്റെ കൂടെ നമ്മൾ പുറത്ത് പോകുന്നതും പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ പല സ്ഥലങ്ങൾ കാണാൻ പോകുന്നതും അതെല്ലാമാണ് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ രസമുള്ള സമയം ആയി കാണുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട്ടം എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് തന്നെയാണ് അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ സമയം പോകുന്നതു പോലും രാവിലെ മുതൽ രാത്രിയാക്കുന്നതു പോലും ഞാൻ അറിയലില്ല കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന ടൈമാണ് ഏറ്റവും രസം അത് അവരെ പല തരത്തിലുള്ള കുസൃതികളും അതുപോലെ അവരെ കൂടെയുള്ള പലതരത്തിലുള്ള കളികളും അങ്ങനെ പലതരത്തിൽ അവരെ സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ രസം തോന്നിട്ടുള്ളത് അന്ന് അവരൂടെ ഇരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയപോലും ഇല്ല